ഹലോ ആരാണ് അതെ

കള്ളൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഹോട്ടൽ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ പറ അപ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത് നാട്ടകം പോലീസ് സ്റ്റേഷൻ അല്ലേ ആ കാ എന്നാൽ ഇത് എപ്പോഴാണ് സംഭവം എപ്പോഴാണ് ആ വീട്ടിൽ ആരെല്ലാം ഉള്ള താമസം ഉള്ള വീട് ആണോ ആ ആ ആ അത് ഒന്ന് ആ എന്തെങ്കിലും വീട്ടുകാർ അറിഞ്ഞോ ഉടമസ്ഥർ അവർ ആ ആ അത് കാര്യമായേക്കും വീട്ടുകാർ എപ്പോൾ വരും വീട്ടുകാർ എവിടെയാണ് സ്ഥലത്ത് എവിടെയാണ് വീട്ടുകാർ എന്ത് ചെയ്യുവാണ് അവർ എപ്പോൾ വരും ആ അവിടെ വേറെ എന്തെങ്കിലും ആ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ

വീട്ടുകാരെ വിളിച്ചപ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഉണ്ടോ അലമാരിക്ക് അകത്ത് ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ട് ഉണ്ടോ സ്വർണ്ണം ആ ആ ആ അത് എല്ലാം പോയിട്ടുണ്ട് അല്ലേ ആ ഞാൻ ഒര് ഒരു വണ്ടി പോലീസും രണ്ട് കോൺസ്റ്റബിളിനെ അങ്ങോട്ട് വിട്ടേക്കാം പിന്നെ ഒരു ഡോഗിനെ കൂടെ വിട്ടേക്കാം ആ പിന്നെ അധികം നാട്ട് നാട്ടുകാർ ഒക്കെ എങ്ങനെയാണ് നാട്ടുകാർ എല്ലാം അറിഞ്ഞോ ഓ ക്രൗഡ് ആണോ ഒരുപാട് പേരെ അറിയിക്കേണ്ട അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ട് ആവും

അവിടെ ക്യാമറ ഉണ്ടോ സി സി ടി വി വല്ലതും ഉണ്ടോ അടുത്ത് വല്ലതും ആ വീട്ടിൽ ഉണ്ടോ അതിന് അതിൽ വല്ലതും അതിന് ഞങ്ങൾ ഇപ്പോൾ രണ്ട് പേർ വരും അവർ വന്ന് അത് ചെക്ക് ചെയ്തോളും എന്തെങ്കിലും സംശയം സംശയം ആയിട്ട് വല്ലതും കാണാൻ അവിടെ വല്ലതും കിടപ്പുണ്ടോ ആ ഓക്കെ ഓക്കെ അത് അത് അത് ഒന്ന് ഇപ്പോൾ അവിടെ ആൾ വരുമ്പോൾ ഒന്ന് ഒന്ന് കാണിച്ച് കൊടുത്തേക്ക് കേട്ടോ താങ്കൾ അവിടെ കാണത്തില്ലേ

ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ആ എന്നാൽ പിന്നെ ആ വീട്ടുകാർ അപ്പോൾ ഇന്ന് തന്നെ വരുമല്ലേ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മകൻ എന്ത് ചെയ്യുന്നു ജോലി മകൻ എവിടെ നാട്ടിൽ തന്നെ ആണോ മകൻ നാട്ടിൽ തന്നെ ആണോ ജോലി ചെയ്യുന്നത് അവരുടെ മകൻ വൈഫ് വൈഫ് എന്ത് ചെയ്യുന്നു